വെള്ളമരിക്കാനും ശുദ്ധീകരിക്കാനും നിങ്ങൾ അതായത് പിന്തുടരുന്ന രീതികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മല അതായത് മലേൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ താമസം അപ്പം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മലവെള്ളമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഫുള്ള് ചളിയൊക്കെ നിറഞ്ഞതായിരിക്കും അപ്പം ഞാൻ സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം അതായത് നമ്മൾ നല്ലൊരു പാത്രത്തിൽ നല്ലതു പോലെ കഴുകിയിട്ട് തലേദിവസം നമുക്കതായത് ഭക്ഷണം വെക്കാനും വെള്ളം കുടിക്കാനും കുടി കുടിവെള്ളം വെക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെയുള്ളത് ആ ഒരു ചെമ്പിലൊഴിച്ച് വെക്കും ചെമ്പിലൊഴിച്ച് വെക്കുന്നവ രാവിലെയാകുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ ഊറിയിരിക്കും അതായത് ചളിയൊക്കെ ഊറിയിരിക്കും എന്നിട്ട് മേലത്തെ വെള്ളം എടുത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് അതായത് മേലത്തെ വെള്ളം നല്ലൊരു പാത്രത്തിൽ എടുത്ത് വെക്കും അടിയിലുള്ള സംഭവം എടുത്ത് കഴുകിക്കളയുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ് അങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളം കിട്ടും രാവിലെ വരെ വെക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചളിയെല്ലാം താഴേക്കടിയും അപ്പോൾ താഴേക്കടിയുമ്പോൾ മേലത്തെ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അതിൽ ചളി കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലവെള്ളമൊക്കെ ആയതുകൊണ്ടും നല്ലവണ്ണം തളപ്പിച്ചിട്ട് മാത്രമേ കുടിക്കാറുള്ളു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഫിൽറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞങ്ങൾ മേടിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്